കേട്ടോ പേടിക്കേണ്ട ആരോഗ്യ സംരക്ഷണ മേഖല ഇന്ത്യയിലെ ആരോഗ്യ സംംരക്ഷണ മേഖല വളരെ നല്ലതാണ് പ്രത്യേകിച്ചു കേരളത്തിൽ കേരളത്തിൽ എല്ലാവർക്കും രോഗം വന്നാൽ ചികിത്സിക്കാൻ വലിയ പൈസ ചിലവില്ലാതെ തന്നെ ജീവിക്കാൻ ചികിത്സിക്കാനുള്ള സർക്കാർ ആശുപത്രികളിൽ മികച്ച സൗകര്യങ്ങളുള്ള ആശുപത്രികളുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സും അവിടുത്തെ നേഴ്സുമാരും അവിടുത്തെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ രോഗികളോട് വളരെ ആത്മാർത്ഥതയും പണ്ടൊക്കെ ആണെങ്കിൽ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ രോഗികളോട് വളരെ മോശമായിട്ട് സംസാരിക്കുക എല്ലാം നല്ല കെയർ കൊടുക്കാനായിട്ട് അവർ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുവാനും കേൾക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ആരോഗ്യമേഖല വളരെ സംതൃപ്തി നിറഞ്ഞതാണ് നമുക്ക് ഒരു അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രിയേക്കാൾ കൂടുതലായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ അവിടെ തിരക്കുണ്ട് എങ്കിലും വലിയ തിരക്കുണ്ട് എങ്കിലും നമുക്ക് മതിയായ ചികിത്സ ലഭിക്കാനായിട്ട് അവിടെയുള്ള ഡോക്ടർമാരും നേഴ്സുമാരും വളരെ കാര്യമായിട്ട് തന്നെ അത്ര ഇപ്പം അവർക്ക് ഒരു അവർക്ക് അവരുടെ ജോലിയോട് അവർക്ക് മതിയായ വേതനം കിട്ടുന്നത് കൊണ്ടായിരിക്കണം അവർക്ക് അവരുടെ ജോലിയോട് വളരെ ആത്മാർത്ഥത ഞങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു മുറിവിന് മുറിവായിട്ട് അവിടെ ആശുപത്രിയിൽ ചെന്നാലും അതൊക്കെ വളരെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ അവർ അത് കൈകാര്യം ചെയ്തു നമുക്ക് വളരെ സന്തോഷകരമായ രീതിയിൽ നമ്മൾ നമ്മുടെ ആവശ്യം നടത്തിത്തരും അതുപോലെ തന്നെ മെഡിസിനുകളൊക്കെ ആണെങ്കിൽ അവർ കഴിക്കേണ്ട വിധങ്ങൾ അതൊക്കെ പ്രത്യേക ആ കവറിൽ എഴുതുകയും പിന്നെ പോരാഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരികയും വളരെ അത്മാർത്ഥതയുള്ള ഒരു ആരോഗ്യ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് വളരെ ആശ്വാസമാണ് സാധാരണപ്പെട്ട പാവപ്പെട്ടവരായ ആൾക്കാർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഒരു ഒരു കാരണവശാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ പാടില്ല ആ ആശുപത്രികളും കൊണ്ടു തന്നെയാണ് ഇവിടുത്തെ സാധാരണപ്പെട്ടവർ കഴിഞ്ഞു പോകുന്നത് അവർക്ക് എന്ത് ഒരു ആശ്രയമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയ ആയിട്ടുണ്ട് ഗവൺമെൻറ് ആശുപത്രികളും അവിടുത്തെ ജീവനക്കാരും ജീവനക്കാർ ഇപ്പം സാധാരണ ഒരു താലൂക്ക് ആശുപത്രിയിലോ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നാലോ മെഡിക്കൽ കോളേജിൽ ചെന്നാലോ മെഡിക്കൽ കോളേജിൽ ഭയങ്കര തിരക്കുണ്ട് ഒരു ഒരുപാട് തിരക്കുണ്ട് അതായത് താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയിലൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒന്നും ഒന്നിനുമൊരു ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അവിടെ ഫുഡ് കൊടുക്കുകയും അതുകൊണ്ട് അവർക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ആകുലതകളില്ല ഒരുപാട് പൈസയൊന്നും പ്രൈവറ്റ് ആശുപത്രി ആശുപത്രി ഇന്നും നല്ലതാണ് എങ്കിലും പാവപ്പെട്ടവരെ സംബന്ധിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റല് ഒരു വലിയ ഒരു അത്താണി എന്നു വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും രക്ഷാമാർഗ്ഗമാണ് അവരുടെ അവരുടെ രോഗങ്ങളുടെ വിവരങ്ങളൊക്കെ പറയാൻ അത് കേൾക്കാനും വളരെ ക്യൂ ആണെങ്കിൽ പോലും ഡോക്ടർമാർ പണ്ട് നമ്മൾ രോഗം പറയുന്നതിന് മുമ്പ് തന്നെ മരുന്ന് കുറിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നിപ്പോൾ ഇന്ന് ഇന്നത്തെ ഡോക്ടർമാരൊക്കെ വളരെ നല്ലവരാണ് നല്ലതായിട്ട് രോഗിയെ പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ രോഗങ്ങളെ വിവരങ്ങൾ എല്ലാം അറിഞ്ഞതിന് ശേഷം മരുന്ന് കുറിച്ചു കൊടുത്ത് അവരെ പൂർണ്ണ തൃപ്തിയോട് കൂടിയാണ് ഈ ആശുപത്രി കടന്നു ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് നമ്മൾക്ക് അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് അതു തന്നെയാണ് അവിടെ കിട്ടുന്ന മരുന്നിനേക്കാൾ ഉപരിയായി ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയുമൊക്കെ ഇടപെടലുകൾ സാധാരണപ്പെട്ടവർക്ക് ഒരു സന്തോഷം കിട്ടുമ്പോഴത്തേക്ക് പകുതി രോഗങ്ങൾ കുറഞ്ഞതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്